വയനാട് ജില്ലയിൽ കൂടുതലും പറയാമെന്നു വച്ച് കഴിഞ്ഞാൽ താപനില കുറവാണ് ഒരു മീഡിയം ചൂടൊക്കെ ഉണ്ടാവുള്ളൂ അതേപോലെത്തന്നെ ഡിസംബർ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും വയനാട്ടിൽ പൊതുവേ വമ്പൻ തണുപ്പാണ് നല്ല തണുപ്പായിരിക്കും പിന്നെ ചൂടും അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല പിന്നെ മഴയെന്ന് വച്ചു കഴിഞ്ഞാൽ പ്രളയം പോലെ വെള്ളമൊക്കെ കയറും മഴയത്ത് പിന്ന മഴയത്താണെങ്കിൽ റോഡിൽക്കൂടിയൊന്നും വണ്ടി ഓടുകയോ അങ്ങനത്തെ ഒന്നും ഇല്ല ആ ഒരു ഒരു റോഡിൽക്കൂടി പത്ത് ഇരുപത് വണ്ടിയൊക്കെ പോകേണ്ടിവരും വണ്ടിയൊക്കെ കുറേ താണൊക്കെ പോവും പിന്നെ അതേപോലെ ചെറിയ റോഡുകളാണ് ഉള്ളത് പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് പിന്നെ അതേപോലെ ട്രിപ്പൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ് കഠിനമായ ചൂട് അങ്ങനെ വേനൽ അങ്ങനത്തെ ഒന്നുമില്ല വെള്ളപ്പൊക്കം ഉണ്ട് അത്യാവശ്യം വെള്ളപ്പൊക്കം ഉണ്ട് മഴക്കാലത്ത് നല്ല വെള്ളപ്പൊക്കമൊക്കെയുണ്ട് അതേപോലെ കഠിനമായ ഇതൊന്നും വെയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല വെയിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഫുള്ളും തണുപ്പൊക്കെയാണ് മിനിമം ചൂട് ഒക്കെ കുറവാണ് അതുപോലെ കഠിനമായിട്ട് ചൂട് തണുപ്പ് തണുപ്പുണ്ട് അതേപോലെ മഴയും ഉണ്ട്